കേൾക്കുന്നില്ലേ ഡോക്ടറേ

നാളെ ഡോക്ടർ ഉണ്ടാവുമോ നാളെ ഒരു ക്ലാസ് ഉണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു രണ്ടര മൂന്ന് മണി എല്ലാം ആവും ഇല്ല എടുത്തിട്ടാണ്

ആ നാളെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിനി ആരോ അതെയോ ആ ഉച്ചയ്ക്ക് ശേഷം അല്ലേ വരേണ്ടത് ചിലപ്പോൾ നാളെ വരാൻ കഴിയില്ല രാവിലെ ഉണ്ടാവുമോ ഞങ്ങൾക്ക് രാവിലെ ക്ലാസിൻ്റെ ടൈം നോക്കിയിട്ടാണ് വരണമെങ്കിൽ അതെയോ ആ നം ഫോൺ ഡോക്ടറുടെ ഫോൺ നമ്പർ പറയുമോ പനി പനിയും വയറുവേദനയും പിന്നെ ഫേസിൽ ഫുൾ കുരു ആയിട്ട് നിറഞ്ഞിനി മിനിഞ്ഞാന്ന് ക്ലാസ്സിൽ പാർട്ടി ഉണ്ടായിനി അപ്പോൾ മുഖത്തേക്ക് ഫ്രണ്ട്സ് വന്നിട്ട് കേക്ക് ഒഴിച്ചു അങ്ങനെ അങ്ങനെ ഫുൾ കുരു വന്നു മിനിഞ്ഞാന്ന് ഉണ്ടായില്ല ഇന്നലെ ദാ ദേ കുരു വന്നു അങ്ങനെ കിടന്നിട്ട് ഉറങ്ങി അപ്പോൾ നല്ലോണം കുരു ആയി ഞാൻ എപ്പോഴും ഓയിൽ തന്നെ കൂട്ടൽ മാഗി എല്ലാം കൂട്ടുമ്പോൾ രണ്ട് ലിറ്റർ ഓയിൽ അതിൽ ഒഴിക്കലുണ്ട് എണ്ണ ഒഴിക്കലുണ്ട് പിന്നെ മുട്ട എപ്പോളും തിന്നും മുട്ട ദിവസം രണ്ട് രണ്ട് തിന്നലുണ്ട് ആ വെജിറ്റബിൾസ് അങ്ങന തിന്നലേ ഇല്ല പിന്നെ ഓയിൽ തന്നെ അധികം കുറേ എന്ന് പുറത്തുള്ള ഫുഡ് എല്ലാം വാങ്ങിയിട്ട് തിന്നും ആ അതുതന്നെ കയ്യിൽ ഒരു കുരു ഉണ്ട് ചൊറിച്ചിൽ ഉണ്ട് കൈ കയ്ക്ക് വട്ടച്ചൊറി ഇല്ലേ ആ

ആ ആ മുമ്പ് ഒരു ഡോക്ടർക്ക് കാണിച്ചിനി അപ്പോൾ ഡോക്ടർ കൈ ഇൻഫെക്ഷൻ ആയി എന്ന് പറഞ്ഞിനി ഗ്ലൗസ് ഇട്ടിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിനി കയ്ക്ക് ഒരു വൺ മന്ത് ആ അപ്പോൾ നാളെ ഞാൻ വരാം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ ആയി ആയി വയ്ക്കുന്നു